ധാരാളം വായിച്ചിട്ടുണ്ട് നോവലും ബുക്ക് അതും ജ്ഞാനപീഠം കിട്ടിയ എഴുത്തുകാരുടെ നിറയെ ബുക്സ് വായിച്ചിട്ടുണ്ട് ഇപ്പം എടുത്തു പറയാനായിട്ട് രവീന്ദ്രനാഥ ടാഗോർ അതുപോലത്തെ ഒരു എഴുത്തുകാരനാണ് റുഡിയാഡ് കിപ്ലിങ്ങ് പിന്നെ നമ്മുടെ ഇപ്പോൾ ജ്ഞാനപീഠം കിട്ടിയ നമ്മുടെ സ്വന്തം ഒ എൻ വി കുറുപ്പും എം ടി വാസുദേവൻ നായരും തകഴിയും അവരുടെ എല്ലാവരുടേയും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബുക്കർ പ്രൈസ് കിട്ടിയ യാൻ മാർട്ടൽ അയാളുടെ ലൈഫ് ഓഫ് പൈയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ലൈഫ് ഓഫ് പൈയ്ക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി രണ്ടിലാണെന്ന് തോന്നുന്നു ബുക്കെർ പ്രൈസ് കിട്ടിയത് അതെനിക്ക് ബുക്കായിട്ടും ഇഷ്ടമാണ് പിന്നെ അതിൻ്റെശേഷം അതിന് അവരതിൻ്റെ ഒരു സിനിമ ഇറക്കി അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിലെ നമുക്ക് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരോ മാറ്റങ്ങളും ഒരു പ്രോബ്ലം വരുമ്പം ആൾക്കാരിൽ ഉണ്ടാവുന്ന ചെയ്ഞ്ചസും എല്ലാമറിയാൻ പറ്റി അപ്പം അങ്ങനെയൊക്കെ എഴുതുന്ന ബുക്സും എന്നെ നന്നായിട്ട് ഇൻഫ്ലുവെൻസ് ചെയ്യാറുണ്ട് എനിക്ക് നല്ല താല്പര്യവുമാണ് അതുപോലത്തെ ബുക്ക്സ് വായിക്കുന്നത് അപ്പം അതെ ഞാൻ ഇങ്ങനെ പുരസ്കാരം കിട്ടിയ എഴുത്തുകാരുടെ ബുക്ക്സും വായിക്കാറുണ്ട്